മലയാളത്തിലെ പ്രയോഗങ്ങൾ എന്നു പറയുകയാണെങ്കിൽ എനിക്ക് ഉത്തരവ് പ്രഭോ അല്ലെങ്കിൽ അത് പണ്ടത്തെ ഒരു ലാഗ്വേജാണ് അല്ലെങ്കിൽ പണ്ടത്തെയൊരു ഭാഷയാണ് രാജഭരണം രാജ ഭരണം നിലനിന്നിരുന്ന ഒരു ടൈമിൽ ഒരു അതാണ് ഉത്തരവ് പ്രഭോ അടിയൻ അടിയൻ ആഞ്ജ സ്വീകരിച്ചിരിക്കുന്നു അങ്ങനത്തെ നല്ല നല്ല പ്രയോഗങ്ങളെല്ലാം എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട് പിന്നെ പഴഞ്ചൊലുകളെന്ന് പറയുകയാണെങ്കിൽ ഒരു കുടത്തിനൊരു ഒരു വെള്ളത്തിനൊരു കുടം അങ്ങനെ വളരെധികം പഴഞ്ചൊല്ലുകൾ മലയാളത്തിലുണ്ട് എന്നിരുന്നാലും എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു അവയറില്ല അവയർനസ്സില്ല പ്രയോഗങ്ങൾ മലയാളത്തിൽ വളരെയധികം ഞാൻ ഉപയോഗിക്കാറുണ്ട് അതിൽ ചിലതാണ് അതിൽ ചിലതാണ് പിന്നൊരു പഴഞ്ചൊല്ലുണ്ട് എല്ലു മുറിയെ പണിയെടുത്താൽ പല്ലു മുറിയെ തിന്നാം എന്നതിൻ്റെ അർത്ഥം വരുന്നത് നമ്മൾ നന്നായി അധ്വാനിച്ചാൽ നമുക്ക് നന്നായി ഭക്ഷണം കഴിക്കാം എന്നതിനുപരിയായി നന്നായിട്ട് നല്ലൊരു ജീവിതം നയിക്കാനാവും എന്നതുകൊണ്ട് എന്നതുപോലെ തന്നെയാണ് പിന്നെ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നു പറയുമ്പോൾ നമ്മൾ നമ്മുടെയൊരു സുഹൃത്ത് നന്നായാൽ പിന്നെ നമ്മളെ നമ്മളെ എന്താ നമ്മളെ പ്രത്യേകിച്ചൊരു നോട്ടത്തിന് ആവശ്യമില്ല അവൻ പറഞ്ഞു തരും അത്രയും അത്രയും സുഹൃത്ത് ബന്ധമാണ് അവിടെ സൂചിപ്പിക്കുന്നത്